ഇന്ത്യ എന്ന് പറയുമ്പോൾത്തന്നെ നമുക്ക് ഓർമ വരുന്നത് ഓണം പെരുന്നാൾ ക്രിസ്മസ് ഇത് മൂന്നും മൂന്ന് മതത്തിൻ്റെ ഉത്സവമാണ് മുസ്ലിംസ് പെരുന്നാളാഘോഷിക്കുന്നു ഹിന്ദുക്കൾ ഓണം ആഘോഷിക്കുന്നു ക്രിസ്മസ് ക്രിസ്ത്യൻസ് ഇനങ്ങനെയാണ് പക്ഷെ ഇങ്ങനെയല്ല ഇത് ഇവരുടെ ആണെങ്കിലും ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും പെരുന്നാള് വന്നാലും എല്ലാവരും കൂടി ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് അത് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കാര്യവും ഒരു ഓണമെന്നാൽ നമുക്ക് കോളേജിൽ പത്ത് ദിവസം ലീവ് നമ്മള് ഒരുപോലെ മുസ്ലിംസോ ക്രിസ്ത്യൻസോ ഹിന്ദുസ്ന്നോ ഒന്നും ഇല്ല എല്ലാവരും ഒപ്പം പൂക്കളം ഇടുന്നു പായസം വയ്ക്കുന്നു എല്ലാവരും ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് അതു തന്നെയാണ് നമ്മൾ അവിടെ മനുഷ്യത്തമാണ് കാണിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇന്നീ സമൂഹത്തിൽ കുറച്ച് പ്രദേശത്ത് മതത്തിനെയും ജാതിയെയും ചൊല്ലി കുറേ പ്രശ്നങ്ങളുണ്ട് എന്നാലും അതിനേക്കാൾ ഏറെ നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് ഒത്തൊരുമ തന്നെയാണ് നമ്മൾ കോവിഡ് പ്രളയം അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ കണ്ടത് എന്താണ് അന്ന് ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ല എല്ലാവരും ഒരുമിച്ച് ഒരു കൂരയുടെ താഴെയാണ് കിടന്നുറങ്ങിയിട്ടുള്ളതും ഭക്ഷണം കഴിച്ചിട്ടുളളതും ഒരു ഒരു മെത്തയിലാണെല്ലാവരും കിടന്നുറങ്ങിട്ടുള്ളതും അന്നൊന്നും നമ്മൾ ഒരു ജാതിയെയും മതത്തെയും കുറ്റം പറഞ്ഞിട്ടുമില്ല ഒന്നുമില്ല